കുട്ടികൾ പൊതുവെ കളിയ്ക്കുകയാണല്ലൊ ചെയ്യുന്നത് അവർക്കെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം എന്നായിരിക്കുമല്ലൊ അവരുടെ ആഗ്രഹം അപ്പം സ്കൂൾ വിട്ട് വന്നാൽ തന്നെ അവർ കളിക്കുക കുഞ്ഞു മക്കളൊക്കെ ചോറും കൂട്ടാൻ കളിക്കുക സൈക്കിളോടിച്ച് കളിക്കുക ഇതൊക്കെയാരിക്കുമല്ലോ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പം അവർക്ക് അവരുടെ ഏറ്റവും വലിയ വിനോദവും ഈ കളി തന്നെ ആയിരിക്കും പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും കാർട്ടൂൺ കാണുക അതു തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചിന്ത കളിക്കുക അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ പിള്ളാരു ഒക്കെക്കൂടി കളിക്കുക വൺ സൈക്കിളോടിക്കുക ടി വി കാണുക കാർട്ടൂൺ കാണുക അതു തന്നെയാണ് അവരുടെ അവർക്ക് ഭക്ഷണം കൂടി കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടം ഒന്നും ഉണ്ടാവില്ല അവർക്ക് എറ്റവും കൂടുതൽ കളി ആയിരിക്കും അവരുടെ എറ്റവും ഇത് എറ്റവും ഇഷ്ടം അതായിരിക്കും അവർക്ക് സ്കൂൾ വിട്ട് വന്ന ഉടനെ കളിക്കണം സ്കൂളില്ലാത്ത ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ പുറത്താരിയിരിക്കും കളിക്കാനായിട്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിനോദം കളി തന്നെയാണ് കളി വിട്ടിട്ട് കുഞ്ഞു മക്കൾക്കും കുട്ടികൾക്കൊന്നും വേറൊരു ഒരു കാര്യമില്ല പിന്നെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വലുതായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആൺ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫുഡ്ബോൾ കളിക്കാൻ പോവുക അവർക്കതു തന്നെ ആയിരിക്കുമല്ലൊ അവരുടെ ഫുട്ബോൾ തന്നെ ആയിരിക്കും ഏറ്റവും വലിയൊരു വിനോദം കുറച്ചൂകൂടി വലുതായി വരുമ്പോൾ ആൺകുട്ടികൾക്കൊക്കെ പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ചോറും കൂട്ടാൻ കളിക്കുക ഒളിച്ചും പൊത്ത് കളിക്കുക കളി തന്നെ ആയിരിക്കും സൈക്കിളോടിച്ച് കളിക്കുക സൈക്കിളിൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന് പറക്കലും അങ്ങനെയൊക്കെ ആരിക്കുമല്ലൊ അവർക്കത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഇഷ്ടം കളി ആണ് അവരുടെ ഏറ്റവും വലിയ വിനോദം